ഹലോ ഇത് മീഷോ ഓഫീസല്ലേ ഞാൻ ഇന്നലെ ഒരു സാരി ഓർഡർ ചെയ്തിരുന്നു ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട് സാരി എത്തി നോക്കുമ്പോൾ അതിൽ ചെറിയ കീറലുണ്ട് കളറും ചെറിയൊരു പ്രശ്നം ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തത് പോലെ അല്ല കിട്ടിയതും ചെറിയ കീറിയ കീറിയ ഭാഗങ്ങളും അതിലുണ്ട് അതുകൊണ്ട് അത് റിട്ടേൺ അടിക്കാൻ എപ്പോഴാ വരിക അത് എനിക്ക് റിട്ടേൺ അടിക്കണം അത് എടുക്കാൻ എപ്പോഴാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് കിട്ടണം കാരണം നമുക്കത് റീഓർഡറ് ചെയ്യണം പിന്നെ എൻ്റെ ഐ ഡി എൻ്റെ ഓർഡർ ഐ ഡി രണ്ട് രണ്ട് അഞ്ച് എട്ട് ഏഴ് പൂജ്യം നാല് അഞ്ച് എന്നുള്ളതാ ഒന്നെങ്കിലത് റീഓർഡറ് ചെയ് റീഓർഡറ് ചെയ്തിട്ട് അല്ലെങ്കിലത് റീഓഡർ ചെയ്യുമോ എന്ന് എനിക്ക് കൺഫേമ് ആക്കണം അല്ലെങ്കിൽ എനിക്കതിൻ്റെ എമൗണ്ട് തിരിച്ച് വേണം വേറെ ഓർഡറ് ചെയ്യണം ഒരു മാരേജ് ഫങ്ഷന് ഉള്ളതായിരുന്നു വൈഫിൻ്റെ മാരേജ് ഫങ്ഷന് വാങ്ങിയതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കത് കിട്ടണം അതുകൊണ്ട് എപ്പോഴാണ് അതെടുക്കാൻ വരിക എന്നുള്ളത് കൃത്യം ഡേറ്റ് ഫിക്സ് ആക്കി തരണം അപ്പോൾ ഇനി ഇങ്ങനെത്തെ അനാസ്ഥകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഓക്കെ